സരോവരം ബയോ ഫാം ആർടി കുട്ടോളി എന്നിവയാണ് ഞങ്ങളുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ജല സ്രോതസ്സുകൾ അതിനകത്തു ആ ജല സ്രോതസ്സ് വെള്ളം ഇതുപോലെ ഒരുപാട് ജലസ്രോതസ്സുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ സ്രോതസ്സുകളെല്ലാം മുഴുവൻ വർഷം നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ആവശ്യ ആവശ്യത്തിനനുസരിച്ചു നമ്മുടെ അവർ വേ നമ്മളെ അറിയിപ്പു നൽകുന്നതിന് അനുസരിച്ച് അപ്പം നമ്മൾ പുതിയൊരു പൈപ്പിടുകയാണെങ്കിൽ നമ്മുക്കതിലേക്ക് നമ്മളവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർ അത് ആ പല കമ്പനികളിലേക്കും വിൽ വിടുകയൊക്കെ ചെയ്യും പല കമ്പനി സോറി അപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോ നമുക്കത് പല സ്ഥലങ്ങൾ അവർ നമുക്ക് അത് ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യും തുടങ്ങി ഒക്കെ എല്ലാം ചെയ്ത ശേഷം അവർക്ക് അങ്ങനൊരു നമ്മൾ പൈപ്പിട്ടിട്ട് ഉണ്ട് എന്ന് അവർക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കും അതനുസരിച്ചു നമുക്ക് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കും പിന്നീട് നമുക്ക് വെള്ളത്തിനെന്ത് ആവശ്യം വന്നാലും അവർ നമുക്കത് ചെയ്ത് തരികയും ചെയ്യും അല്ലാണ്ട് തരാതിരിക്കുകയൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള പിന്നെ നമുക്ക് പിന്നീട് നമുക്ക് എന്ത് പൈപ്പ് പൊട്ടുകയോ അങ്ങനെ പല എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് അത് അവർ തന്നെ വിളിച്ചു ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അത് നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല അങ്ങനെ എല്ലാം ഓക്കെ ആയി പോണു നമുക്ക് ഈ പറഞ്ഞ ഞങ്ങടെ ഇവിടുള്ള എല്ലാ സ്രോതസ്സുകളും നമുക്ക് ഓരോ വർഷവും വെള്ളം കിട്ടുന്നുണ്ട് വെള്ളം കിട്ടായ്കയോ അങ്ങനത്തെ പ്രോബ്ളമൊന്നും ഇല്ല കിട്ടുന്നതൊക്കെ ഉണ്ട്